ഭൂമിയിലുള്ള പോലെ തന്നെ മറ്റു ഗ്രഹങ്ങളിലും ജീവൻ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരുപാട് തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് മൂണിൽ ആയാലും മാർസിൽ ആയാലും ഓക്സിജൻ പോലുള്ള ഗ്യാസസിൻ്റെ പ്രസൻസ് കണ്ടു പിടിച്ചിട്ടുണ്ട് ഇപ്പോ ഗ്യാസസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ ഒരു ജീവൻ്റെ സാന്നിധ്യം ഉണ്ടാവാൻ ചാൻസസ് കൂടെ കൂടുതലാണ് പിന്നെ എന്താ ഏലിയൻസ് ഏലിയൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഏലിയൻസിനെ കണ്ടിട്ടുണ്ട് കാണപ്പെടുന്നു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോ ഇതൊക്കെ എന്താ അന്യഗ്രഹജീവികള് ഏലിയൻസ് ഒക്കെ ഉണ്ട് എന്ന് ഉള്ളതിന് തെളിവാണ് കൂടാതെ തന്നെ ഗ്ലൈസി സിക്സ് സിക്സ് സെവൻ സി സി എന്ന് പറയുന്നത് സൗരയൂഥത്തിന് പുറത്തുള്ള ഒരു ഗ്രഹമാണ് അവിടെ ജീവൻ്റെ ജീവനുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ തെളിവുകൾ ഒക്കെ വെച്ച് നോക്കുമ്പോ ബാക്കിയുള്ള ഗ്രഹങ്ങളിൽ ഭൂമിയിൽ ഉള്ള പോലെ തന്നെ ജീവൻ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്